ഇപ്പൊൾ നക്ഷത്രത്തെക്കെ കുറിച്ചും അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതായത് ഇപ്പൊൾ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊൾ ആലോചിക്കുമ്പോൾ എന്താ പറയുക ആകാശത്തിലെ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെയുണ്ട് അപ്പൊൾ ഓരോന്നിനും ഓരോ നെയിമും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പൊൾ എന്താ പറയുക ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ പേരൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും ഇപ്പൊൾ നമ്മള് ഓരോ നക്ഷത്രവും ഇപ്പൊൾ വാൽനക്ഷത്രംന്നൊക്കെ നമ്മള് കുറെ പേര് ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ നമുക്കും ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും ഇടയ്ക്കിങ്ങനെ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നതൊക്കെയായിട്ടും അങ്ങനെ കാണാം ചിലത് എന്താ പറയുക നമ്മള് ഈ മൈക്രോസ്കോപ്പ് പോലുള്ള സാധനങ്ങള് അങ്ങനെയുള്ള സാധനങ്ങളിൽ കൂടിയൊക്കെ എന്താ പറയുക ടെലസ്കോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ ലോങ്ങ് ആയിട്ട് വ്യൂ ഒക്കെ കിട്ടും അതായത് എന്താ പറയുക വാന നിരീക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും പിന്നെ നക്ഷത്രങ്ങളെ എന്താ പറയുക ഇപ്പം ഭൂമിയില് താമസിക്കുന്നത് പോലെ തന്നെ നമുക്ക് പുറത്ത് പോയി ചന്ദ്രനിലും നക്ഷത്രങ്ങളിലൊക്കെ താമസിക്കാൻ പറ്റുമോ എന്ന് ചോ ചിന്തിക്കുന്നവരും ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് ഇതിലൂടെ ഇതിലൂടെ സാധിക്കും അപ്പം നക്ഷത്രങ്ങളെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം